അഞ്ച് പന്ത്രണ് രണ്ടായിരത്തി ഏഴ് ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് രണ്ട് ആറ് രണ്ടായിരത്തി എട്ട് രണ്ട് ആറ് രണ്ടായിരത്തി പതിനാല് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്